പണ്ടൊക്കെ ഒരുപാട് വെറൈറ്റിയിലുള്ള മീനുകൾ കിട്ടുമായിരുന്നു നല്ല ക്വാളിറ്റി ഉള്ള വലിപ്പമുള്ള മീനുകൾ കിട്ടുമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ജലമലിനീകരണവും വായു മലിനീകരണവും ഒക്കെ കൊണ്ട് തന്നെ നമുക്ക് മീനുകളുടെ ക്വാളിറ്റിയും വലിപ്പവുമുള്ള മീനുകളേയും കിട്ടുന്നില്ല ഫാക്ടറിയിൽ നിന്നുള്ള വിശ വിഷ പുകയും മലിനീകരണ സ രാസവസ്തുക്കൾ ഒക്കെ പുഴയിലേക്കും കടലിലേക്കും മറ്റ് ജലസ്രോതസ്സുകളിലേക്കും ഒഴുക്കി മീനുകളുടെ ലഭ്യത വളരെ കുറവായിരിക്കുകയാണ് പണ്ടൊക്കെ ഒരുപാട് വളർച്ചയുള്ള വലിയ മീനുകളെ കിട്ടിയിരുന്നു പക്ഷേ ഇപ്പോൾ വളരെ ചെറിയ മീനുകളെയാണ് കിട്ടുന്നത് ഇവിടെ ഇവരുടെ പ്രജനനം തന്നെ തീർന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു പിന്നെ പണ്ടൊക്കെ വലിയ മീനുകളും വളരെ ഔഷധഗുണമുള്ള മീനുകളും ടേസ്റ്റ് ഉള്ള മീനിൻ്റെ ഇറച്ചിയൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഈ മലിനീകരണം കൊണ്ട് തന്നെ ഈ മീനിൻ്റെ രുചിക്കൊക്കെ ഒരുപാട് വ്യത്യാസം ആയിട്ട് വരുന്നു പിന്നെ ഒരുപാട് ജലമലിനീകരണം കൊണ്ട് തന്നെ ഒരുപാട് മത്സ്യ സമ്പത്ത് കുറഞ്ഞിട്ടുണ്ട് അവയുടെ പ്രജനനം തന്നെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് പണ്ട് പല മീനുകളും കരയിലേക്ക് അടുത്ത് വന്ന് ജാ പുഴയും കടലും കായലും ആയിട്ട് ആ ഒരു സ്ഥലത്തായിരുന്നു പ്രജനനം നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോഴത്തെ മലിനീകരണ സ്രോതസ്സും ഒക്കെ കൊണ്ട് തന്നെ ഇത് ഇപ്പോൾ കുറഞ്ഞു വരികയാണ്